ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പ്രദേശമെന്നു പറയുമ്പോൾ മലകളാണ് കൂടുതൽ വലിയ ഇഷ്ടം കാരണം എന്നു വച്ചാൽ മലകൾ എന്നു പറയുമ്പോൾ അവ കയറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അവ കയറിയതിന് ശേഷമുള്ള കാഴ്ച നമുക്ക് ആ ഇത്ര നേരം നമ്മൾ കയറിയ കഷ്ടപ്പാട് ഇല്ലാതാക്കും അതിമനോഹരമായിരിക്കും മലകൾക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്കും മലകൾ കുറച്ച് കയറാൻ ഇഷ്ടം അതുപോലെതന്നെ വനങ്ങളും ഇഷ്ടമാണ് വനങ്ങൾ എന്നു പറയുമ്പോൾ വനങ്ങൾക്കിടയിലുള്ള ആ യാത്ര അതിമനോഹരമായിരിക്കും കാരണം നല്ല തണുപ്പായിരിക്കും അതേപോലെതന്നെ ഒരു കുളിർമ്മ അങ്ങനെയുള്ളൊരു യാത്രയായിരിക്കും അത് പിന്നെ ബീച്ചുകളും ഇഷ്ടമാണ് ബീച്ചുകൾ എന്നു പറയുമ്പോൾ എനിക്ക് ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പോകാനാണ് താൽപ്പര്യം കാരണം ആ സമയത്ത് ബീച്ചുകളിലൂടെയുള്ള യാത്ര അത് ഒരു മനോഹരമായ കാഴ്ച്ച തന്നെയായിരിക്കും സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പിന്നെ അതുപോലെതന്നെ മഞ്ഞ് മൂടിയ പർവ്വതങ്ങൾ എന്നു പറയുമ്പോൾ അവിടെ പറയാല്ലോ ഭയങ്കര തണുപ്പായിരിക്കും അതു തന്നെയാണ് ആ യാത്ര ചെയ്യാനുള്ള ഒരു ആ തണുപ്പത്ത്കൂടി യാത്ര ചെയ്യാനുള്ള മനോഹരമായൊരു ഇതായിരിക്കും അതുപോലെതന്നെ സൂര്യാസ്തമയങ്ങൾ എന്നു പറയുമ്പോൾ അറിയാല്ലോ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് സൂര്യാസ്തമയം സൂര്യൻ അസ്തമിക്കുന്നത് കാണാനും സൂര്യൻ ഉദിക്കുന്നത് കാണാനും വളരെ ഇതാണ് ഉദിക്കുന്ന കാണാൻ പോകണ്ടേ നന്ദി ഹിൽസ് എന്നീ സ്ഥലങ്ങളിൽ ഹൈക്ക് ചെയ്താൽ സോ അടിപൊളി ആയിരിക്കും കാരണം സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് നന്ദി ഹിൽസ്